നമ്മൾ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കുക ഇപ്പം ട്രക്കിങ്ങാണ് സ്കൂളിൽ നിന്നൊക്കെ ട്രിപ്പുണ്ടാകുമല്ലോ ട്രക്കിങ്ങ് പറഞ്ഞ് കൊണ്ട് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ പ്ലാസ്റ്റിക്കെല്ലാം ഓലെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ ട്രക്കിങ്ങ് ചെയ്യുന്ന മറ്റേ വണ്ടി ജീപ്പാണ് അധികം ഉണ്ടാകൽ ജീപ്പിലേക്ക് കയറ്റില്ല എന്ന് പറയുക പ്ലാസ്റ്റിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എവിടുന്നാണോ കൊണ്ട് വന്നത് അവിടെ തന്നെ കൊണ്ട് ഇടുക എന്നിട്ട് ഇത് മാത്രം കേറ്റുവൊള്ളു പ്ലാസ്റ്റിക്ക് എന്തുണ്ടെങ്കിലും കൈയ്യിലുണ്ടെങ്കിൽ അത് നമ്മൾ അനുവദിക്കരുത് അങ്ങനെ ചെയ്യാം പ്ലാസ്റ്റിക്കിൻ്റെ എന്ത് സാധനം ഉണ്ടെങ്കിലും നമ്മൾ ആ ജീപ്പിലേക്ക് കയറ്റാതിരിക്കുക പ്ലാസ്റ്റിക്ക് അവിടെ ഇട്ട് പ്ലാസ്റ്റിക്ക് നമ്മൾ ആ പരിസരത്തൊന്നും ഇടരുത് കർശനമായി അഥവാ ഇട്ടാൽ തന്നെ ഫൈന് ഈടാക്കുക ഈടാക്കുക എന്നാൽ തന്നെ കുറേ അധികം നമുക്ക് അതിന് രക്ഷ കിട്ടും പിന്നെ പ്ലാസ്റ്റിക്ക് പിന്നെ വെള്ളം വാട്ടർ ബോട്ടിലൊക്കെ പ്ലാസ്റ്റിക്ക് മാറ്റി മറ്റേതാക്കുക കഴിയുന്നതും പ്ലാസ്റ്റിക്ക് ഫുൾ ഒഴിവാക്കുക കുട്ടികളോടൊക്കെ പറയുക പിന്നെ സ്കൂൾ ട്രിപ്പ് അല്ലാത്തവർക്ക് അവിടെ ബോർഡ് സ്ഥാപിക്കുക പ്ലാസ്റ്റിക്ക് അങ്ങോട്ട് കയറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ തന്നെ കയറ്റിയാൽ മറ്റേ വലിയ തുക ഫൈനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അതിൽ നിന്ന് കുറേ രക്ഷപ്പെടും